നമ്മുടെ ഈ പ്രാദേശികമായ കമ്പോളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ് നമുക്ക് പറയാൻ പറ്റും കാരണം പണ്ട് കാലത്തെപ്പോലുള്ള പണ്ട് കാലത്ത് എന്നു പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും ആളുകളെന്തായിരുന്നു കൃഷിയുമായി വളരേയധികം ബന്ധം ബന്ധം പുലർത്തിയിരുന്ന അഭേധ്യം ബന്ധം ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരായിരുന്നു നേരെമറിച്ച് ഇക്കാലത്ത് എന്നു പറഞ്ഞാൽ കൃഷിയൊക്കെ വിട്ട് കൃഷിയുള്ള പാടങ്ങൾ നോക്കി എല്ലാ പാടം നോക്കി ഫാക്ടറി പോലത്ത ആളുകൾ ഫാക്ടറി നിർമ്മാണ തൊഴിലാളികൾ പോലത്ത ആളുകൾ വന്നിട്ട് പാടങ്ങളൊക്കെ നികത്തി ഫാക്ടറികൾ പൊന്തിച്ചിക്കണ കാലമാണല്ലോയിത് പൊന്തിക്കണ കാലമാണ് അപ്പോൾ ഈ ഒരു കാലത്ത് പാടത്ത് കൃഷി ചെയ്യുന്നതിനേക്കാൾ കൃഷി ചെയ്യുന്നത് കാണുന്നത് വളരെയധികം കുറവാണ് അപ്പം ഇക്കാലത്ത് അതുമായി അത് സംബന്ധിച്ചുള്ള മെഷീന് കാര്യങ്ങളൊക്കെ എത്തിക്കൽ അല്ലെങ്കിൽ പണ്ടുകാലത്ത് ചെയ്തിരുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആളുകളില്ല എന്നുള്ളതാണ് പിന്നെ എനിയിപ്പോൾ അതുപോയി എത്തിക്കുകയാണ് തന്നെത്തന്നെ അതിന് ആൾക്കാർ വളരെയധികം കുറവാണ് അവരിങ്ങോട്ട് എത്തിക്കണം അതിനുള്ള കുറേ കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നെല്ല് നെല്ല് കൊയ്യാനുള്ളൊരു മെഷീന് കാര്യങ്ങൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടക കാര്യങ്ങളിപ്പോൾ കൊടുക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വാടക കൊടുക്കണം അങ്ങനെ പിന്നതുപോലെതന്നെ അതിൽ കുറേ വരുന്ന നഷ്ടങ്ങൾ പിന്നെ അങ്ങനെ കൃഷി ചെയ്യാനിപ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലം ഇതാക്കണമല്ലോ കിളക്കണം അപ്പോൾ കിളക്കാൻ അതിനുവേണ്ട ഉപകരണങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരണം ആ ഉപകരങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനുള്ള വാടക പണിക്കാരുടെ കൂലി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടിവരും അതൊക്കെ കൊടുത്തതിനുശേഷം ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വിളവ് നമ്മൾക്കെന്താണ് അതിനൊത്ത കൃഷിയുടെ അല്ലെങ്കിൽ അതിനൊത്തത് നമുക്ക് തന്നില്ലയെന്നുണ്ടെങ്കിൽ വിളവ് നമുക്ക് തന്നില്ലയെന്നുണ്ടെങ്കിൽ അതെന്താകും പ്രശ്നമാവും അതായത് അത് അവിടെ നഷ്ടം വരും അങ്ങനെ ഇത്തരത്തിൽ അതുപോലെതന്നെ അതിനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളെന്താണ് വരാനുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്നു പറഞ്ഞാൽ വാടക എന്തിനും തൊട്ടത്തിനും പിടിച്ചതിനും വാടക കൊടുക്കേണ്ടൊരു കാലമാണ് അപ്പോൾ എന്ത് മിഷീന് കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വാടക ടാക്സ് കാര്യങ്ങളൊക്കെ അതിന് വരും അപ്പോൾ ഇതൊക്കെയെന്താണ് കർഷകർക്കെന്താണ് ബുദ്ധിമുട്ടുകളാണ് പിന്നെ വാടക ഒറ്റയ്ക്കല്ല ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വേറെയെന്തിൽ നിന്നും കൊണ്ടുവരികയാണെങ്കിൽത്തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ആളുകളെയാണ് നമ്മൾ ഐ മീൻ വേറെയെന്തെങ്കിലും ആവശ്യത്തിന് ആളുകൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടത്തിന് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി ആളുകളെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കൂലി അങ്ങനെ ഇത്തരത്തിൽ കുറേ ധാരാളമെന്താണ് പ്രശ്നങ്ങൾ ഞമ്മുടെ ഈ പ്രാദേശിക കമ്പോളത്തിലെന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ആൾക്കാർ വളരേയധികം ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറെക്കുറേ ഇതിൽ ഇതിൽ ഇതിൽ പുറമേയും എന്താണ് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്